ഞാനിപ്പോൾ അവിസ്മരണീയമായിട്ട് കയറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയുള്ള ബ്രഹ്മഗിരി മല അതായത് പക്ഷിപാതാളം അങ്ങനെയുള്ളൊരു മല നമ്മള് കയറിയിട്ടുണ്ടായിരുന്നു ഞാന് ഒരു ഫെബ്രുവരി മാസത്തിലാണ് കയറിയത് ഞാനുണ്ടായിരുന്നു എൻ്റെ കസിൻസ് ഒരു മൂന്ന് പേരുണ്ടായിരുന്നു ആ അപ്പോൾ ഞങ്ങള് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ട് കുറച്ച് താഴെയുള്ള ചെക്കൻമാരൊക്കെയുണ്ട് അപ്പോൾ അവൻമാരെയൊക്കെ എടുത്തിട്ട് നമ്മള് ബ്രഹ്മഗിരി മലേൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമാണ് അത് കയറാൻ വേണ്ടി തന്നെ നമ്മളിവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് പോയത് പൊറോട്ടയും മുട്ടക്കറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാരും കൂടി പിരിവ് ഇട്ടിട്ട് വാങ്ങി ഇവിടുത്തെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെയാണ് നമ്മള് പോയത് ഒരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സഹായത്തോടെ അപ്പം നമ്മളിവിടുന്ന് ആദ്യം നമ്മൾ അതിൻ്റെ ഐവിൻ്റവിട പോയി അയിൻ്റെ ഐവിൻ്റടുത്തുന്നു മെല്ലെ നടന്ന് കേറ് ആണ് ചെയ്യുന്നത്

അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രസമായിരുന്നു അതിൻ്റെ മണ്ടക്ക് കയറിയത് അതിൻ്റെ മുകളില് നല്ല മലകള് കാര്യങ്ങള് ഒക്കെ ആയിരുന്നു നല്ല എന്താ പറയുക മൈതാനം പോലുള്ള മലകളൊക്കെയായിരുന്നു അതൊക്കെ കയറാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നല്ല രസമുള്ള ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി